ആ ഞങ്ങള് കടയിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ആ അത് ഒരു ജങ്ക് ആണ് ഓർഡർ ചെയ്തത് ജെല്ലിൻ്റെ ആ അതെ അതെ പക്ഷേ അത് ഇവിടെ വന്നപ്പഴേ അത് നശിച്ച് പോയിട്ട് ഉണ്ടായിരുന്നു ആ എസ് എസ് നിങ്ങളുടെ മോശം പാക്കേജ് കൊണ്ടാണ് നശിച്ച് പോയത് നിങ്ങളുടെ പാക്കേജിംഗ് മോശം ആയതു കൊണ്ടാണ് ജെല്ലിൻ്റെ സാധനം ആണ് അത് പൊട്ടി പോയിട്ടുണ്ട്

ആ അത് ചില്ലിൻ്റെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ആകെ നശിച്ച് പോയിട്ടുണ്ട് നിങ്ങളുടെ പാക്കേജ് ശരി ആക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സാധനം പൊട്ടി പോകത്തെ ഉണ്ടാവുകയുള്ളു ആ അതെ അതെ നമുക്ക് ഒന്നെങ്കിൽ റീഫണ്ട് വേണം ഞങ്ങൾക്ക് റീഫണ്ട് വേണം കാരണം പൊട്ടിപ്പോയ സാധനം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലൊ അതുകൊണ്ട് റീഫണ്ട് വേണം

ആ ഓക്കെ ഓക്കെ നിങ്ങളുടെ പാക്കേജിലെ മിസ്റ്റേക്ക് ആണ് നിങ്ങള് പാക്കേജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒക്കെ പാക്കേജ് ചെയ്യണം നിങ്ങളുടെ പാക്കേജിംഗ് കറക്റ്റ് ആക്കണം അല്ലാതെ ചിലിൻ്റെ ഗ്ലാസ് ഇതും കുടി ആയതുകൊണ്ട് ആ അതെ നിങ്ങളുടെ പാക്കേജിംഗ് മിസ്റ്റേക്ക് ആയതു കൊണ്ടാണ് ഞങ്ങളുടെ ജെഗിൻ്റെ കാ ജെഗ് ജെഗ് ഇങ്ങനെ പൊട്ടി പോയത് ആ ഞങ്ങൾക്ക് റീഫണ്ട് വേണം ആ ഓക്കെ ശരി